ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെന്നുപറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ പല രീതീയിലുള്ള വിദ്യാഭ്യാസമേഖലകളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് കാരണമെന്തെന്നു വച്ച് കഴിഞ്ഞാൽ പുറമെ നിന്ന് വരുന്ന അതായതിപ്പോൾ വയനാട് പോലുള്ള ജില്ലകളിലൊക്കെ വിദ്യാഭ്യാസസൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് പല കുട്ടികളും നമ്മുടെ കോഴിക്കോട് ജില്ലയിലേക്കാണ് വരുന്നത് അപ്പോൾ അവർക്കെന്നു പറഞ്ഞുകഴിഞ്ഞാൽ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിലും അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഇവർക്ക് ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെയെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം അയ്യായിരം ആറായിരം രൂപേന്റെയടുത്തൊക്കെ ചിലവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇപ്പോൾ വയനാട് വയനാടെന്നൊക്കെ പോലത്തൊരു സ്ഥലത്തുനിന്നൊക്കെ വരുമ്പോ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടുന്നവരായിരിക്കും അവരുടെ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ മോശമായിട്ടുള്ളവരായിരിക്കും എന്നാലും അവര് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടിക്കോട്ടേയെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കോഴിക്കോടൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ വിടുന്നത് അപ്പോൾ അവര് നല്ല രീതീയില് വളർന്നുവരാൻ വേണ്ടിയിട്ട് പല രീതിയിലുളള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വെക്കും അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇവര് വീടുകളാണ് കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുക അപ്പോൾ ഒന്ന് അതായത് അഞ്ചാറ് കുട്ടികളൊക്കെ വച്ചിട്ട് വീടുകളും കാര്യങ്ങളൊക്കെയാണ് തെരഞ്ഞെടുത്തിട്ട് അവര് അവിടെ താമസിക്കാറുള്ളത്